അതേ തീർച്ചയായും അവർ അവരുടെ സ്വയം കഴിവുകൊണ്ട് മുന്നേറിയതാണ് അത് അവർ അവർ മുന്നേറിയതെന്ന് വച്ചാൽ അവർ പഠിച്ചു അവർ അവരുടെ രീതിയിൽ പോയി പക്ഷെ അവർക്ക് അതുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ അവര് സക്സസാണ് അപ്പം മാക്സിമം ഇത് ചെയ്യുക അവർക്ക് സക്സ്സാവാൻ പറ്റും അപ്പം മാക്സിമം ഇത് ചെയ്തു കൊണ്ടന്നെ ഇരിക്കണം അപ്പം അവർക്ക് നല്ലൊരു ഇത് സക്സസ് ആവാൻ സാധിക്കും അപ്പം മാക്സിമം അത് തന്നെ ശ്രമിക്കുക അവർ സക്സസായി കൊണ്ടിരിക്കും അവർ അവരുടെ ലൈഫിൽ സക്സസാകും അപ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പം മാക്സിമം അവർ പഠിച്ചത് കൊണ്ട് അവർക്ക് കിട്ടി അവർ സ്വം സ്വന്തമായി മുന്നേറിയതാണ് അവർ അവർ സ്വയം മുന്നേറി എന്ന് ഉറപ്പായിട്ടും നമുക്ക് പറയാം പിന്നെ അവർ പഠിച്ചത് കൊണ്ട് തന്നെ അവർക്ക് കിട്ടിയത് അപ്പോൾ അവർ സ്വന്തവായിട്ട് മുന്നേറിതാണ് അപ്പം അതുപോലെ തന്നെയാണ് അവര് ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് അവര് എല്ലാരീന്നും ഡിഫറെൻറ്റാരിക്കും അവര് അത്രേം എത്തീട്ടുണ്ടെങ്കി അവര് തോറ്റ കുട്ടികളെക്കാലും മറ്റുള്ള കുട്ടികളെക്കാലും എല്ലാരിൽന്നും ഡിഫറെൻറ്റാരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം